ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും കൂട്തൽ ആദായം കിട്ടുന്ന വിളകൾ കുരുമുളക് കാപ്പി റബ്ബർ ഇഞ്ചി തേയില കുരുമുളക് വാഴ ചേമ്പ് ചേന മരച്ചീനി എന്നിവയാണ് ഏറ്റവും കൂടുതല് വിളവും കിട്ടുന്ന തേങ്ങ

ഇവയെല്ലാമാണ് പച്ചക്കറികൾ പയര് മത്തങ്ങ കുമ്പളങ്ങ വെള്ളരി ഇവയെല്ലാമാണു നമ്മൾ കൃഷി ചെയ്തിട്ടു വിളവെടുക്കുന്നത് നല്ല ആദായം ഇതില്നിന്നെല്ലാം കിട്ടും കാപ്പിക്കും കുരുമുളകിനുമാണു കൂടുതൽ